ഞാനൊരു ബൈക്കിങ് യാത്രയ്ക്ക് വേണ്ടിയിട്ട് കൂടുതലായിട്ടും കൊണ്ടുപോകുന്ന സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാല് നമ്മള് മെയിനായിട്ട് നല്ല വലിയൊരു ബാഗ് കാര്യങ്ങൾ ഒക്കെ വാങ്ങുക നമ്മള് കൂടുതലായിട്ടും ഇപ്പോൾ ചിലപ്പോൾ നമ്മള് ഹോട്ടലുകളിൽ ഒന്നും ആയിരിക്കില്ല താമസിക്കുന്നത് നമ്മൾ ഇപ്പോൾ വഴി സൈഡിൽ ഒക്കെ നിർത്തിയിട്ട് അവിടുന്ന് ഒക്കെയാണ് താമസിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ നമ്മള് കൂടുതലായിട്ടും ടെന്റ് അതായത് റെഡിമെയ്ഡ് ആയിട്ട് നമുക്ക് ടെന്റ് കാര്യങ്ങളൊക്കെ വാങ്ങാം നമ്മളൊരു ബ്ലാങ്കറ്റ് എടുക്കുക ഒരു എന്തേലും തോർത്തോ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമ്മള് എപ്പഴും കൈയിൽ കരുതുക കാരണം ഏത് നേരത്താണോ നമ്മളിപ്പോൾ പുഴയിൽ ഒക്കെ കുളിക്കേണ്ടി വരിക അപ്പം നമുക്ക് തോർത്ത് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ആയിട്ടുള്ള ഒരു ഘടകമാണ് പിന്നെ നമ്മുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലായിട്ട് നമ്മള് പാക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ വയ്ക്കുക ഇതൊക്കെ മെയിനായിട്ട് നമ്മളുടെ വണ്ടിയില് പലരീതിയില് ഇപ്പോൾ വണ്ടിയില് നമ്മള് പോകുന്ന സമയത്ത് വണ്ടിക്ക് ഫ്യുവൽ ഫ്യുവൽ എഫിഷ്യൻസി ഒക്കെ ചിലപ്പോൾ കുറവായിരിക്കും അപ്പം നമ്മള് കൂടുതലായിട്ടും ഫ്യുവൽ അടിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഗ്യാരേജ് അതായത് ഫ്യുവൽ ഗാരേജ് കാര്യങ്ങളൊക്കെ എപ്പോഴും നമ്മള് കരുതി വണ്ടിയില് വെക്കുന്നത് തന്നെ നമ്മൾ വയ്ക്കുന്നതാണെങ്കിൽ നമുക്ക് അത് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ട് കാര്യങ്ങളും ഒന്നുമില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മള് മെയിനായിട്ട് കൊണ്ട് നടക്കുക പിന്നെ വെള്ളം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുക ഇതാണ് മെയിനായിട്ട് കൊണ്ടു പോകേണ്ട സാധനങ്ങള്